ഉണ്ട് ഒരു മീറ്റിങ്ങിൽ അല്ല അനവധി മീറ്റിങ്ങിള് പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ വിധൂരത്തൊള്ള ബന്ധുക്കളെ ബന്ധപ്പെടുന്നതിനുമായി ഞാൻ വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് സേവനം വളരെ അധികം ഉപയോഗിച്ചിട്ടുണ്ട് ആധുനിക കാലത്ത് ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇന്റര്നെറ്റ് വഴിയാണ് അപ്പോൾ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ വീഡിയോ കോൺഫറൻസിംഗ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കൊറോണാ കാലത്ത് പ സ്കൂളുകളിൽ പോയിരുന്ന പഠനം എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടേറിയത് ആയിരുന്നു പ്രായോഗികമല്ലായിരുന്നു അതിനാൽ അന്ന് ഓൺലൈൻ ആപ്പുകളായ ഗൂഗിൾ മീറ്റ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് മീറ്റ് തുടങ്ങിയ ആപ്പ്കൾ ഉപയോഗിച്ചാണ് പഠനം നടന്നിരുന്നത് ഇത് ഇതിൽ നമുക്ക് വീഡിയോ കോൺഫറൻസും അല്ലെങ്കിൽ ഓഡിയോ കോൺഫറൻസും അനിവാര്യമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തുള്ള ബന്ധുക്കളെ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കാനഡേലുള്ള ബ്രദർ ഓസ്ട്രേലിയേലുള്ള കസിൻസ് സൗദിയിലുള്ള ആന്റി ഇവരെയെല്ലാം ഞാൻ വ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുമായി ഞാൻ ബന്ധപ്പെടുന്നത് ഈ പറയുന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് അതിൽ സ്കൈപ്പ് അല്ലെങ്കിൽ വാട്ട്സപ്പ് മുതലായ ആപ്പ്കൾ ഉപയോഗിച്ചാണ് ഇവരുമായി ഞാൻ സംസാരിക്കുന്നതും ബന്ധം നിലനിർത്തുന്നതും ഇതിൽ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഏത് സമയവും സമയ പരിമിതി ഇല്ലാതെ ഇവരോട് സംസാരിക്കാനും ഇടപെടാനും സാധിക്കും അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാതെ തന്നെ ഓൺലൈനായി നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കാനും സാധിച്ചു അതൊരു ന വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇതിൽ എനിക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്നാൽ ഇന്റര്നെറ്റ് സൗകര്യമാണ് ചില സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ അഭാവം മൂലം വീഡിയോകൾ സ്റ്റക്കാവുകയും അതുപോലെ തന്നെ കണക്ഷന് പോവുകയും ചെയ്യുന്നു ഇതൊരു വളരെ ബുദ്ധിമുട്ടായി തോന്നി അത് സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ നെറ്റ് വർക്കിൻ്റെ പ്രശ്നം മൂലമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു സംവിധാനം വീഡിയോ കോൺഫറൻസെന്ന് പറയും ഈ ഒരു സംവിധാനം വന്നത് ഈ ആധുനിക ലോകത്ത് വളരെ അധികം മെച്ചപ്പെട്ടൊരു കാര്യമാണ് കാരണം ഇപ്പോൾ വളർന്നോണ്ടിരിക്കുന്ന ലോകത്ത് ആൾക്കാരുമായി ബന്ധം നിലനിർത്താനോ അല്ലെങ്കിൽ ഒഴിവു സമയങ്ങളിൽ ആൾക്കാരുമായി ഒന്ന് സംസാരിക്കാനോ ബുദ്ധിമുട്ടുകൾ ഏറെയാണ് അപ്പോൾ ഇതുപോലുള്ള മൊബൈൽ ആപ്പ്കൾ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ വിദേശത്തിൽ പോയിട്ടുള്ള നമ്മളുമായി ബന്ധമുള്ള ആൾക്കാര്ടെരു അടുത്ത് വളരെ സ്വസ്ഥതയോടെ സംസാരിക്കാനും അവരുമായി നമുക്ക് ബന്ധം നിലനിർത്താനും സാധിക്കുന്നു വീഡിയോ കോൺഫറൻസിലൂടെ നമുക്ക് നമ്മുടെ നമുക്ക് ഏറ്റ് നമ്മൾ നമ്മുടെ ബന്ധുക്കളെ വിളിക്കുമ്പൊഴോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ബന്ധമുള്ളവരെ വിളിക്കുമ്പൊഴോ അവരുടെ രൂപം കണ്ട് സംസാരിക്കുക അവരെ നേരിട്ട് കാണുന്നത് പോലെ സംസാരിക്കാൻ എന്ന് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ടെക്നോളജികളുടെ ഒരു ഒരു നല്ല വശങ്ങളാണ്